വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൺകുട്ടികൾക്ക് സൈക്കിളോ ലാപ്ടോപ്പോ നൽകുന്നത് പോലുള്ള പദ്ധതികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിലവിലിപ്പോഴും ഉണ്ട് അത്തരം പദ്ധതികള് വളരെ ഫലപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തുല്യമായി കിട്ടേണ്ടൊരു അവകാശമാണ് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ഇന്ന് നന്നായി കിട്ടേണ്ട ഒന്ന് തന്നെയാണ് വിദ്യാഭ്യാസം അത് ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും കിട്ടേണ്ട ഒന്നാണ് അത് ഏതെല്ലാം രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാവോ ആ രീതിയിലെല്ലാം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിദ്യാഭ്യാസം നൽകേ നൽകേണ്ടത് അനിവാര്യമാണ് അത് ഏത് വിധത്തിലും സ്കൂളിൽ പോയി പഠിക്കാന് വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ വീട്ടില് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതോ ഏതാണെങ്കിലും അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് സൈക്കിളോ ലാപ്ടോപ്പോ നൽകുന്ന പദ്ധതികള് സൈക്കിളാണെങ്കിൽ പെൺകുട്ടികൾക്ക് തനിയെ യാത്ര ചെയ്ത് പോകാനുള്ള ഒരു ഒര് ആവശ്യകത അല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ സൈക്കിൾ മാത്രമല്ല സ്കൂട്ടറായാലും ഇന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെ പദ്ധതികളിന്ന് നിലവിൽ കുറേയധികം വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം പെൺകുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഉള്ള പദ്ധതികളാണ് അതുപോലെ ലാപ്ടോപ്പുകള് ലാപ്ടോപ്പിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാകുന്നതാണ് അപ്പം അത് സൗകര്യ സൗജന്യമായി കൊടുക്കുന്നതാണ് കൊടുക്കുന്ന പദ്ധതികള് വന്ന് കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമായ ഒന്നായിരിക്കും ലാപ്ടോപ്പുകളാണെങ്കിലും നമുക്കറിയാം ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ തന്നെ കുട്ടികൾക്കായാലും എല്ലാവർക്കും പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഒരുപാട് ഉപയോഗം ഉള്ള ഒന്നാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകള് പോലെയല്ല ലാപ്ടോപ് നമുക്ക് നമ്മുടെ കൈകളിൽ തന്നെ സുരക്ഷിതമാണ് നമുക്ക് വേണ്ട വിധം അത് കൈകാര്യം ചെയ്യാനും സാധിക്കും അപ്പം അത് ഒക്കെ ലാപ്ടോപ്പ് പോലെയുള്ള വസ്തുക്കള് സൗജന്യപ്രദമായി പെൺകുട്ടികൾക്ക് നൽകുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അതുപോലെ ബുക്കുകളും ഈ ലേർണിംഗ് ഫോൺ സ്മാർട്ട് ഫോണുകള് ഇതൊക്കെ കൊടുക്കുന്നതായാലും വളരെ പെൺകുട്ടികൾക്ക് തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടു വരുന്നതിനായി വളരെ നല്ലതായി ഉള്ള വളരെ നല്ലതായി കൊണ്ടുപോകാന് പറ്റുന്ന പദ്ധതികളാണ്

പിന്നെ അങ്ങനെ ഒരുപാട് പദ്ധതികള് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുണ്ട് എന്നാ അതുപോലെ അത് അത് എല്ലായിടത്തും തന്നെ നടത്തണമെന്നില്ല പല ജില്ല പല സംസ്ഥാനങ്ങളിലും ഇന്ന് പെൺകുട്ടികൾക്ക് അവസരങ്ങള് ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് എല്ലാ വീടുകളിൽ നിന്നും എല്ലാവർക്കും വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനുള്ളൊരു അവസരം കിട്ടണമെന്നില്ല ചിലർക്കെങ്കിലും വീടുകളിലുള്ള ബുദ്ധിമുട്ടും പട്ടിണി ദാരിദ്ര്യം ഇങ്ങനെയുള്ളതൊക്കെ മൂലം അതുപോലെ തന്നെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ അനുഭവിക്കുന്നവർക്കൊക്കെ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടാറുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കി പുതിയ പുതിയ പദ്ധതികള് സർക്കാര് രൂപീകരണം ചെയ്താൽ അത് പെൺകുട്ടികൾക്ക് വളരേയേറെ ഫലപ്രദമായിരിക്കും അങ്ങനെയുള്ള പുതിയ പുതിയ പദ്ധതികള് വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നല്ല നല്ല പദ്ധതികൾ വന്ന് നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരികയും സമത്വം അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടി എന്ന വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തില് ഈ ലോകത്തില് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ളൊരു അവസരം നമുക്ക് വേണ്ടതുണ്ട് അപ്പം അതിനായിട്ടൊക്കെ ഇങ്ങനെയുള്ള പുതിയ പുതിയ പദ്ധതികള് പ്രോത്സാഹിപ്പിക്കുവാണ് ചെയ്യേണ്ടത് പിന്നീട് പിന്നീടാണെങ്കിലും പുതിയ പുതിയ പദ്ധതികള് കൊണ്ടുവരുന്നത് അവരുടെ മുന്നോട്ട് ഉള്ള സ്ത്രീ ശാക്തീകരണത്തിനാണെങ്കിലും മുന്നോട്ട് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലായിടത്തും ഇങ്ങനെയുള്ള പുതിയ പുതിയ പദ്ധതികൾ വരണമെന്ന് തന്നെയാണ് ഞാനാഗ്രഹിക്കുന്നത്